ആ കേൾക്കുന്നില്ലേ ആ കുറേ പുതിയ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഐ ഫോണിന്റെ തന്നെ പല വിധത്തിലുള്ളത് ഉണ്ടായിരുന്നു നമുക്ക് ഇ എം എ ഒക്കെ വരുന്നുണ്ട് ഫോണിൽ

എല്ലാ മോഡൽ സെറ്റും ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് ബഡ്ജറ്റിൽ ആണ് ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ എല്ലാം ഉണ്ട് ഫസ്റ്റ് ഷോപ്പിൽ വന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമുക്ക് അത് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വരുത്തിക്കാൻ പറ്റും ഷോപ്പിലേക്ക് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തുതരും ഓർഡർ ചെയ്യുന്നതിന് അനുസരിച്ചേ നമ്മൾ റെഡി ആക്കി ഡെലിവറി ചെയ്തുതരും ഓക്കേ അങ്ങനെ ചെയ്യുന്നുണ്ട് ഏ ഏതിൻ്റെ ഓപ്പോ ഒക്കെ ജസ്റ്റ് നമുക്ക് പന്ത്രണ്ടിന് ഒക്കെ ഉണ്ട് പന്ത്രണ്ട് പതിനഞ്ച് സംതിങ്ങിനൊക്കെ നല്ലത് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ക്ലാരിറ്റി ഉണ്ട് ക്യാമറ ക്ലാരിറ്റി നല്ലതായിരിക്കും എത്ര രൂപേന്റെ ഒരു ഫോൺ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെയോ ഓ ഓപ്പോൻ്റെ നല്ല മോഡൽ ഉണ്ട് വിവോൻ്റെ ഉണ്ട് റിയൽമി ഉണ്ട് ഇപ്പോൾ ഏത് വേണം നിങ്ങള ഇഷ്ടത്തിന് ചൂസ് ചെയ്താൽ മതി എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല നമുക്ക് കുറേ എം ബി കുറേ ഉണ്ട് അതായത് നമുക്ക് സ്പേസ് ഉണ്ടാവും

ക്ലാരിറ്റി നല്ല ക്യാമറ ക്ലാരിറ്റി ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം നോക്കിയിട്ട് ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആണ് കേട്ടോ എല്ലാവരും ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നവരൊക്കെ നല്ല അഭിപ്രായം ആണ് പറയുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അധികം വിലയില്ല പക്ഷേ നമ്മുടെ രീതിയിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ല ഒരു ഫോൺ ആയിരിക്കും ഇ എം എ ഉണ്ട് അതിന് ഇ എം എ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആറ് മാസത്തിനുള്ളിൽ ഗഡുക്കളായിട്ട് അടച്ച് തീർത്താൽ മതി സ്റ്റാർട്ടിങ് ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഉള്ളത് പോലെ ഒരു മൂവായിരം വെച്ചോ അല്ലെങ്കിൽ ഉള്ളത് പോലെ അങ്ങ് അടച്ച് തീർത്താൽ മതി ആറ് മാസം കൊണ്ട് അടച്ച് തീർക്കണം

ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫോൺ വേണ്ടത് അത് എത്രയാണ് ഇപ്പം ഓപ്പോ ഓപ്പോ ആണെങ്കിൽ ഓപ്പോ എ ഫിഫ്റ്റീൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഏതാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അഡ്രസ്സ് ഞങ്ങൾ പിന്നെ ഡെലിവറി ചെയ്തോളും

ഓക്കേ

ആ അങ്ങനെ ചെയ്താൽ മതി ശരി